കഴിഞ്ഞ ദിവസം ഞാൻ കൊച്ചിയിൽ നിന്ന് കടവന്ത്രയിലേക്ക് ഒരു യാത്ര ചെയ്യുകയായിരുന്നു ഞാൻ ഊബറില് ബുക്കെയ്തിട്ടാരുന്നു യാത്ര ചെയ്തത് പക്ഷെ ഞാന് ബുക്കിയെയ്ത് ആ ഒരു കടവന്ത്ര എത്തിയതിനു ശേഷം എനിക്ക് എൻ എത്തിയപ്പോഴാണ് ഞാൻ നോക്കിയത് എൻ്റെ ഒരു മൊബൈൽ ഫോൺ അവിടെ കളഞ്ഞുപോയി മൊബൈൽ ഫോണിനകത്ത് എൻ്റെ ആവശ്യമുള്ള ഡാറ്റയും കാര്യങ്ങളുമൊക്കെയുണ്ട് ഞാനാണെങ്കിൽ പെട്ടെന്നൊരു ജോലിയുടെ ആവശ്യത്തിനായിട്ടായിരുന്നു കൊച്ചിയിൽ നിന്ന് കണ കടവന്ത്രയിലേയ്ക്ക് ഊബര് ബുക്കെയ്ത് വന്നത് ആ ഫൊ ആ മൊബൈല് കിട്ടിയാലെ എനിക്ക് അതിനകത്ത് കുറേ ഡാറ്റകളൊക്കെ ഉണ്ട് അപ്പോള് ജോബിനെക്കുറിച്ച് ആളും ജോബിനിലോ ഒരിൻറ്റർവ്യൂവിന് വേണ്ടിയായിരുന്നു ഞാൻ വന്നത് അപ്പോള് ഇൻറ്റർവ്യൂവില് കൊടുക്കാനുള്ള കാര്യങ്ങളും ഡാറ്റയും അത്യാവശ്യം കോപ്പികളുമൊക്കെ എൻ്റെയാ ഒരു മൊബൈലിലായിരുന്നു ഉണ്ടായിരുന്നത് അപ്പപ്പ എനിക്കാ മൊബൈല് കിട്ടിയാൽ മാത്രമേ എനിക്ക് മുമ്പോട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാനും കഴിയുള്ളു ഞാനിപ്പോള് ഊബർനുളെ ഈയൊരു ആപ്പിന് ഈയൊരു ആപ്ലിക്കേഷന് ഞാൻ വന്നീ കാര്യങ്ങള് പറയുന്നേന്നുവച്ചാൽ എനിക്ക് കഴിഞ്ഞ ദിവസം ഞാൻ യാത്ര ചെയ്ത ആ ഊബറിലെ ആ ഡ്രൈവറിൻ്റെ ഫോൺ നമ്പറോ എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടുകയാണെങ്കില് എനിക്ക് ആ ഒരു ഡ്രൈവറിനെ ബന്ധപ്പെട്ട് എൻ്റെ ഫോൺ നമ്പര് തിരിച്ച് എൻ്റെയൊരു മൊബൈൽ ഫോൺ തിരിച്ചെടുക്കുവാനും അതൊരു വഴി എൻ്റെ ഡാറ്റ തിരിച്ചെടുക്കാനൊക്കെ സഹായിക്കാൻ എൻ്റെ വിലപ്പെട്ട കാര്യങ്ങളും അതിലിപ്പോള് എൻ്റെ ജോബിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും മാത്രമല്ല എൻ്റൊരു ഫോൺ നമ്പേഴ്സായാലും ഫോട്ടോയായാലും അത്യാവശ്യം ആരുടെയെങ്കിലും ഡീറ്റെയിൽസായാലും വേറെ ആപ്ലിക്കേഷനും അതിൻ്റെ പാസ്വേഡും കാര്യങ്ങളൊക്കെ ആയാലും ഈയൊരു മൊബൈൽ ഫോണുമായിട്ടായിരുന്നു അടങ്ങി ഇരിക്കുന്നെ എനിക്കത് കിട്ടിയാൽ മാത്രമേ അടുത്തുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുകയുള്ളു ഇപ്പോള് എനിക്ക് ഒരാളെ വിളിക്കാൻ പോലും എനിക്ക് സാധിക്കുന്നില്ല കാർണം എൻ്റെ കയ്യില് ആ ഒരു വ്യക്തിയുടെ ഫോൺ നമ്പറും കാര്യങ്ങളൊന്നുമില്ല അപ്പോള് അതിനെന്തെങ്കിലും കിട്ടിയാൽ മാത്രമെ എനിക്ക് സാധിക്കത്തുള്ളു അപ്പോള് എനിക്ക് പറയാനുള്ള എന്നാന്നുവച്ചാല് എന്തെങ്കിലും അതിൻ്റെ ഫോൺ നമ്പറോ എന്തെങ്കിലും കിട്ടണം എന്നാൽ മാത്രമെ എനിക്ക് എന്തായിരുന്നു ആ ഒരു ആ ഒരു വ്യക്തിയുടെ ഫോൺ നമ്പര് കിട്ടിയാൽ മാത്രമേ എനിക്ക് ആ ഒരു മൊബൈൽ ഫോൺ വീണ്ടെടുക്കാനായിട്ട് ആ ഒരു ഡ്രൈവറിനെ കോൺടാക്ടിയ്യാനും അതുവഴി മൊബൈൽ ഫോൺ വീണ്ടെടുക്കാൻ സാധിക്കത്തുള്ളു ഈ ഒരു കഴിഞ്ഞ ദിവസം എൻ്റെ മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടത് കൊണ്ട് ജോബിന് ഇൻ്റർവ്യൂ പോയപ്പോൾ അതിന് വേണ്ടിയുള്ള ഡീറ്റെയിൽസൊക്കെ അതിനായതുകൊണ്ട് തന്നെ എനിക്ക് ജോബ് ഇൻ്റർവ്യൂ ശരിക്കും അറ്റൻഡ് ചെയ്യുവാനും ഒന്നും സാധിച്ചില്ല അപ്പോള്

എനിക്ക് ഈ ജോബ് എനിക്ക് ജോബിൻ്റർവ്യൂ എനിക്ക് അത്യാവശ്യം എനിക്കൊരു ജോലിയില്ലാതൊരു വ്യക്തിയാണ് ഞാൻ അപ്പോള് ഞാനാ നല്ല രീതിയില്